ഹലോ കസ്റ്റമർ സർവീസ് അല്ലേ എനിക്ക് ഇന്ന് വന്ന ഡെലിവെറിയെക്കുറിച്ച് ഒരു കംപ്ലൈൻറ്റ് നൽകാനായിരുന്നു ഞാൻ വിളിച്ചത് ഇന്നു ഇന്ന് എനിക്കൊരു പ്രൊഡക്ട് ഡെലിവറി ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ പ്രൊഡക്ട് ഭയങ്കര ഡാമേജ് ആയിരുന്നു അതായത് പാക്കേജ് ഭയങ്കരമായിട്ട് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ ആ ഡെലിവറി ബോയ്നോട് സംസാരിച്ചപ്പോൾ അയാൾ ഭയങ്കര മോശമായിട്ടാണ് എന്നോട് പെരുമാറുകയുണ്ടായത് അതിനൊരു ക കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് അപ്പോൾ ഞാൻ ഡാമേജ്ഡ് ആയ പ്രൊഡക്ട് സ്പോട്ട് ക്യാൻസൽ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവർ അത് സ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞ് വളരെ മോശമായിട്ടാണ് എന്നോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തത് അപ്പം ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യണമായിരുന്നു അതിനെക്കുറിച്ച് എൻ്റെ ഈ വീടിൻ്റെ സ് ലൊക്കേഷൻ അതിന്റെ അകത്ത് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ സൈഡിലേക്കുള്ള ഡെലിവറി ബോയ് ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ എടുത്ത് നോക്കിയിട്ട് അയാൾക്കെതിരെ ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യണമായിരുന്നു വേറെ എന്തെങ്കിലും ഇൻഫൊർമേഷൻസ് വേണമെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞ് തരാവുന്നതാണ്